ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മള് എന്താ പറയുക ഓട്ട മത്സരത്തിനും ഒക്കെ പങ്കെടുക്കാറുണ്ട് നൂറ് മീറ്ററ് ഇരുന്നൂറ് മീറ്ററ് അതുപോലെ തന്നെ റിലേ ആയിരം മീറ്ററ് ഓട്ടം അങ്ങനെ ഒക്കെ ഉണ്ടായിരുന്നു അന്നൊക്കെ ഒരുപാടും ഒരുപാട് മത്സരങ്ങൾ നമ്മളുടെ സ്കൂളുകളിൽ നടന്നിട്ടുണ്ട് അതിനൊക്കെ പങ്കെടുത്തിട്ടുണ്ട് അതിനുള്ള തയ്യാറെടുപ്പ് എങ്ങനെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഒന്നാമത് എക്സസൈസ് ഒക്കെ ചെയ്തത് നമ്മളുടെ ശരീരത്തെ കൂൾ ആക്കി നിർത്തുകയാണ് ഒന്നാമത് ചെയ്യുന്നത് പിന്നെ അതിനനുസരിച്ചുള്ള വ്യായാമങ്ങളൊക്കെ ചെയ്യും പിന്നെ പിന്നെ കുറച്ച് നമ്മള് ഓടി നോക്കും എങ്ങനെയാണ് നമ്മള് അതൊക്കെ അങ്ങനെ ഓടി നോക്കും പിന്നെ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് പിന്നെ റിലേയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് ഇങ്ങനെ നമ്മള് അനുഭവം എന്ന് പറഞ്ഞാൽ സൂപ്പറാണ് നമ്മള് ഓടുമ്പോൾ നമ്മള് ആരെയും ഒന്നും കാണില്ല നമുക്ക് ഫിനിഷിങ് പോയിൻറ്റ് മാത്രമെ ഉണ്ടാകുകയുള്ളു അപ്പം അതൊക്കെ ഒരു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒക്കെ അതൊക്കെ ഒരു വലിയൊരു അനുഭവം ഒക്കെ തന്നെ ആണ് നമ്മള് ഇങ്ങനെ പങ്കെടുക്കുക മത്സരങ്ങളിൽ ഒക്കെ പങ്കെടുക്കുക അങ്ങനെ ഒക്കെ പറയുന്നത് അപ്പം നല്ലൊരു അനുഭവം തന്നെ ആയിരുന്നു അങ്ങനെ ദീർഘ ദൂരമൊക്കെ ഓടാൻ ഓടി ഫസ്റ്റ് മേടിക്കുക ഒക്കെ ഭയങ്കര ഒരു ഇത് തന്നെയാണ് അങ്ങനെ രണ്ട് മൂന്ന് മത്സരത്തിനൊക്കെ പങ്കെടുത്ത് അങ്ങനെ ഇങ്ങനെ ഫസ്റ്റ് ഒക്കെ ആയിട്ടുണ്ട്